ഇപ്പോഴത്തെ പരസ്യങ്ങള് എങ്ങനെയാന്ന് വച്ച് കഴിഞ്ഞാല് ഇപ്പം ആൾക്കാരിലേക്ക് നല്ല രീതിയില് എത്തിക്കാൻ വേണ്ടിയിട്ട് പരസ്യങ്ങള് പലര് പല മാർഗ്ഗങ്ങളിലൂടെ അതായത് പരസ്യം മാത്രമല്ല ഇപ്പമൊരു പ്രൊഡക്റ്റ് ഇപ്പം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ നല്ല രീതിയിലവര് പരസ്യത്തിലൂടെ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും അത് വാങ്ങാൻ വേണ്ടിയിട്ടും അവര് നല്ല രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് കാരണം ഓരോ പരസ്യങ്ങളിലൂടെയും പല തരം കണ്ടൻറ്റുകളാണവര് കൊണ്ടുവരുന്നത് ഇപ്പം ഒരു തരത്തിലുള്ള സാമ്യം ഇല്ലാത്ത കണ്ടൻറ്റുകൾ കൊണ്ട് വന്ന് അവരത് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പല തരം പ്രക്രിയകള് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ ഇവിടൊരു ചേച്ചിയുണ്ട് ഇവിടെ മറ്റേ ഉള്ളിയരി ആ ഭാഗത്ത് ഒരു ചേച്ചിയുണ്ടായിരുന്നു അപ്പം ആ പുള്ളിക്കാരി എങ്ങനെയെന്ന് വച്ച് കഴിഞ്ഞാല് ഇതേപോലെത്തന്നെ ഒരു പ്രൊമോഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ആ പുള്ളി അവരുടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എങ്ങനെയാന്ന് വച്ച് കഴിഞ്ഞാല് ആ ഒരു എന്താ പറയുക പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പരസ്യം തന്നെയാണ് അതായത് ഒരു കംഫർട്ട് സൺലൈറ്റ് ഹോർലിക്സ് ഇങ്ങനത്തെ പ്രോഡക്റ്റുകളുടെയൊക്കെ എന്താ പറയുക ഇപ്പം അവര് തന്നെ ഓരോ ആൾക്കാരുടെ ഇടയ്ക്ക് പോയിട്ട് ഇതിനെക്കുറിച്ച് പറയുക ഇതിൻ്റെ വീഡിയോസ് കാണിച്ച് കൊടുക്കുക അപ്പം അത് നല്ലൊരു പ്രൊഡക്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡെമോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് മാ എന്താ പറയുക അടുത്തറിഞ്ഞിട്ട് സ്മെല്ല് ചെയ്ത് ഇത് നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് കാണിച്ച് കൊടുക്കുന്ന രീതിയില് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനേയും വേണമെങ്കിൽ ചെയ്യാം അപ്പം അങ്ങനെയൊക്കെ കൂടുതലായിട്ടും ഇപ്പം പരസ്യങ്ങള് ചെയ്യാറുണ്ട്